എനിക്കു ചിത്രം വരക്കാന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് ഞാൻ എപ്പഴും പടം വരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്നുപറഞ്ഞാല് ഒരു പാടവരമ്പത്തൂടെ ഒരു പെൺകുട്ടി ഒരു പാവാടയും ബ്ലൗസുമിട്ട് പാടവരമ്പത്തുകൂടി ഇങ്ങനെ നടന്നുപോകുന്നൊരു പഴയ ഗ്രാമീണ സന്ദർഭം ഒരു ഇളം വെയില് കയ്യിലൊരു പുൽത്തകിടി നല്ല ഞാറ്റുവേല കഴിഞ്ഞ നല്ല വയൽപ്പാടങ്ങിലൂടെ നെല്ല് പൂത്തുനില്ക്കുന്ന സമയം അതിനിടയിലൂടൊരു പെൺകുട്ടി പോകുന്ന ഒരു പടം വരയ്ക്കാനെനിക്കു വളരെ ഇഷ്ടമാണ് അതുപോലെ തന്നെ അതുപോലെതന്നെ നല്ല നല്ല മലകളും മലകളുടെ നല്ല രാവിലെ കോടമഞ്ഞിൽ ഉദിച്ചുനില്ക്കുന്ന സൂര്യൻ്റെ ആസ്ഥാനത്തിൽ രണ്ടു മലകളെ അണിഞ്ഞൊരുക്കിനില്ക്കുന്ന ആ നീലാകാശവും ആ കാക്കകളുടെ ആ ആ ഒരു വിരുന്നുപോക്കും അതുപോലെതന്നെ ആ ഈറൻ മേഘത്തിൻ്റെ ആ മേഘത്തട്ടുകളിലൂടുള്ളയാ സൂര്യപ്രകാശവും ഒക്കെത്തന്നെ എനിക്ക് ഭയങ്കര വളരെ അതിമനോഹരമായ പടം വരയ്ക്കാനുള്ള എനിക്കേറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം വിഷയമാണ് ഇതു രണ്ടും അതുപോലെതന്നെ ആണ് ഇതുപോലെ പിന്നീടെന്നു പറഞ്ഞാല് നമ്മൾ പെട്ട ചില സന്ദർഭങ്ങളിൽപ്പെട്ടു പടം വരയ്ക്കാറുമുണ്ട്